നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റോം കൂടുതൽ ആദായകരമായുള്ള വിളകൾന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജന വിളകളാണ് നമുക്കേറ്റോം കൂടുതൽ ആദായമണി ഏലം ഇഞ്ചി കുരുമുളക് ഗ്രാമ്പു കറുവാപ്പട്ട അങ്ങനെ അങ്ങനെയുള്ള വിളകൾ സുഗന്ധവ്യഞ്ജനമായിട്ടുള്ള വിളകളാണ് നമുക്കേറ്റോം കൂടുതൽ നമുക്ക് ആദായകരമായിട്ട് കണ്ട് വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്കത്യാവശ്യം വില ഉണ്ട് അതേപോലെ നമുക്കതിന് കൂടുതലായിട്ടും ഒള്ള ആദായം ആയി വരുന്നത് നമ്മൾ പുറത്തേക്ക് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ അതിനെ കയറ്റി അയയ്ക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അനുസരിച്ച് ഈ സുഗന്ധവ്യഞ്ജന വിളകൾ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതിനുള്ള ഒരു കാലാവസ്ഥയും അതിന് പറ്റിയൊരു യോജിച്ച ഒരു മണ്ണും ഒക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ നല്ല രീതിയിൽ നമുക്കുല്പാദിപ്പിക്കാൻ കഴിയും അതുവഴി നമുക്ക് നല്ല ഒരു ആദായകരമായ വിള എന്നു പറഞ്ഞ് സുഗന്ധവ്യഞ്ജനങ്ങൾ തന്നെയാണ് കർഷകരെ സമ്പന്ധിച്ചും ഏറ്റോം കൂട്തലും ആദായകരമായിട്ട് തോന്നിയിട്ടുള്ളത്